ബൈക്ക് കാര് ഓട്ടോ ബസ് ജീപ്പ് ഇവ കാരണമുണ്ടാവുന്ന വെല്ലുവിളികൾ എന്തെന്നു ചോദിച്ചാല് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കാതെ പോകുമ്പോൾ നമുക്ക് പലർക്കും ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ ഒരു റൂട്ടിലൂടെ തന്നെ ഒരു സൈഡിലൂടെ തന്നെ പോവുമ്പോൾ ആക്സിഡൻ്റ് പറ്റും വൺ വേ റോഡാണെങ്കില് എങ്കിലും മറ്റ് ഒരു സൈഡില്ക്കൂടെ തന്നെ നമ്മള് വാഹനം ഓടിക്കുന്നതു കുറ്റമാണ് അപ്പോഴും നമുക്ക് ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുകയും അതുപോലെ തന്നെ ലൈസൻസ് അതിനു വേണ്ട പ്രൂഫും കാര്യങ്ങളെല്ലാം കയ്യിൽ വയ്ക്കുകയും ചെയ്യുക അതുപോലെ ഏത് റൂട്ട് കൂടെയാണോ ഏത് വൺ വേ റോഡാണെങ്കില് ആ വൺ വേ റൂട്ട് കൂടെ മാത്രം ആയിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക ബസ്സിൽ ഓട്ടോയില് കയറുമ്പോൾ മൂന്നിൽ നാലില് കൂടുതല് ആൾക്കാര് കയറാതിരിക്കുക അതുപോലെ തന്നെ തിക്കും തിരക്കുമുള്ള വാഹനത്തിൽ കയറാതിരിക്കുക നമുക്ക് പല പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ഇതെല്ലാമാണു നമ്മള്ക്കു പരിഹരിക്കാൻ പറ്റാവുന്നത് ഇത് ഇതെല്ലാം നമ്മള് പരിഹരിച്ചുകഴിഞ്ഞാല് നമുക്ക് നല്ല രീതിക്കു തന്നെ മുന്നോട്ടുപോവാൻ പറ്റും ബോഡും കാര്യങ്ങളെല്ലാം നമ്മള് ശ്രദ്ധിച്ചിട്ടു വേണം നമുക്കു വാഹനമോടിക്കാന് വളവും തിരിവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചിട്ടു വേണം വാഹനം ഓടിക്കാന്